കുറച്ച് ദിവസം മുൻപെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു റെഡ്മി മോബൈൽ ഫോൺ ഓർഡർ ചെയ്തിരുന്നു ഇന്നലെയാണ് അതെന്റെ കൈയ്യിൽ കിട്ടിയത് അതാണെങ്കിൽ ഒട്ടും യൂസ്ഫുൾ അല്ല കാരണം അതിന്റെ റാമും സ്റ്റോറേജും വളരെ കുറവാണ് ഹാങ്ങിങ് ആവുന്നുണ്ട് ബാറ്ററി പവർ ആണെങ്കിൽ ഒട്ടും തന്നെ ഇല്ലതാനും ഇത് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് ഇപ്പോൾ നോക്കുമ്പോൾ ഇതിനെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതായിരിക്കുകയാണ്